ഉൾനാടുകളിലുള്ളവർക്ക് കളിക്കുന്നതിലൂടെ കുറേ പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ട് അതായത് ഉൾനാടുകളിൽ നമുക്ക് ക പരിസ്ഥിതികമായിട്ട് ചില പാടത്തും വരമ്പത്തും കുട്ടികളും മുതിർന്നവരും ഒത്തുകൂടി ക്രിക്കറ്റും ഫുട്ബോളും മറ്റും കളിക്കാറുണ്ട് അതിൽ നമുക്ക് അവർക്ക് കിട്ടുന്ന പ്രയോജനമെന്നു പറഞ്ഞാൽ സാമൂഹിക ഇടപെടലുകൾ അതായത് ടൗണിലാണെങ്കിൽ നമുക്ക് ടർഫ്കാർ ടർഫ് പോലെയുള്ള കാര്യങ്ങൾ ടർഫിൽ കളിക്കുന്നുണ്ട് അവർ ക്യാഷ് കൊടുത്തു ക്യാഷ് കൊടുത്തിട്ട് എല്ലാവരും ക്യാഷ് കൊടുത്തിട്ട് ഫെഡ്ലൈറ്റ് രാത്രി രാത്രിയെന്നു പറഞ്ഞാൽ വൈകും വരെ രാത്രി പന്ത്രണ്ടു മുതൽ രാവിലെ വരെ അവർ ഫുട്ബോളും ക കളിക്കുമ്പോൾ അവരുടെ മറ്റേ ആക്ടിവിറ്റിയിൽ അവരുൾപ്പെടുന്നുണ്ട് അതായത് ഡ്രഗ്സ് മയക്കു മരുന്ന് പോലെയുള്ള ആക്ടിവിറ്റികളിൽ കുട്ടികൾ ഇതിൽ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് കുറേ പോലീസുകാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഉൾനാടുകളിലുള്ളവർക്ക് അങ്ങനത്തൊരു പ്രോബ്ലം ഉണ്ടാകാറില്ല അതായത് അവരാണെങ്കിൽ വൈകുന്നേരം നാല് ഒരഞ്ചു മണിക്ക് തുടങ്ങി ഒരാറ് ഏഴു മണി ആകുമ്പോഴേക്ക് കളി കഴിഞ്ഞു അതായത് പകൽ വെളിച്ചത്തിൽ മാത്രം കളിക്കുന്ന ഒരു പ്രവണതയാണ് ഉള്ളത് അതുകൊണ്ട് അവർക്ക് ഇതിൽ വേറെ വേറെന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനോ അതൊന്നും അവർക്കതിൽ സാധിക്കുന്നില്ലയെന്നല്ല അങ്ങനത്തൊരു അങ്ങത്തൊരു ചാൻസ് അവർക്കതിലില്ല അതു കൊണ്ടാണ് നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നുള്ളത് എല്ലാവരും ഉൾനാടുകളിലുള്ളവർക്ക് കളിക്കുന്നതിലൂടെ എങ്ങനെയാണ് പ്രയോജനം കിട്ടുന്നത് കളിക്കുന്നതിലൂടെ കുറേ പ്രയോജനങ്ങൾ സ്റ്റാമിന കാര്യങ്ങൾ സ്റ്റാമിന പോലെ അവരുടെ കലാവാസന അതായത് സ്പോർട്സ് സ്പോർട്സിലുള്ള അവരുടെ കലാവാസനകൾ കുട്ടികൾ ഇത് പരിപോഷിപ്പിക്കുന്നതിലൂടെ ഇടപെടലുകൾ കിട്ടുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ജീവിതത്തിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റും പിന്നെ അതുപോലെ ഗ്രാ ഗ്രാമ പ്രദേശങ്ങളിൽ കളിക്കുന്ന കളിക്കുന്ന കളിയാണെങ്കിൽ അവിടെ കുട്ടികളും മുതിർന്നവരും ഒന്നിച്ചിട്ടാണ് കളിക്കുന്നത് ഇപ്പോൾ ക്രിക്കറ്റായാലും ഫുട്ബോളയാലും വോളി ബോളായാലും ഗോട്ടിക്കളി ആയാലും ഏത് കളി ആയാലും അവർക്ക് അത് കളിക്കാനുള്ള ഒരു ആൾക്കാർ അവിടെയുണ്ട് അതുപോലെ എല്ലാ ടൗൺ അതായത് ടൗൺ ഏരിയിലേൽ കളിക്കുമ്പോൾ അവർ ഫുള്ള് നെറ്റും നെ രാത്രി രാത്രിയിൽ ലൈറ്റും കാര്യങ്ങളും ഇട്ട് ടർഫ് പോലെയുള്ള അവിടെയാണ് കളിക്കുന്നത് അതിലൂടെ കുറേ പ്രോബ്ലങ്ങൾ നടക്കുന്നുണ്ട് അതിപ്പോൾ എത്രയോ കേസുകൾ റിപ്പോട്ട് റിപ്പോട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ പിന്നെ ഇവിടെ കളിക്കുന്നത് ഉൾനാടുകളിൽ കളിക്കുന്നവർ എന്നു പറഞ്ഞാൽ എല്ലാം സാധാരണക്കാരാണ് അവർ രാ രാവിലെ രാവിലെ മുതൽ വൈകുന്നേരം അഞ്ചു മണി ആകുമ്പോൾ പണി കഴിഞ്ഞു സാധാരണ നാട്ടുവേലകൾ ചെയ്തിട്ടാണ് വരുന്നത് അവർക്ക് അവിടെ ഒരു കൂട്ടം ഉണ്ടാകും ഒരു ക്ല ക്ലബ്ബുണ്ടാകും ക്ലബ്ബിൽ പലതരം ആളുകൾ അതായത് ഒരു വീട്ടിലെ എല്ലാവരും ഒരു ക്ലബ്ബിൽ അംഗമായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു കൂട്ടമായിരിക്കും അവിടെ ഉണ്ടാകുന്നത് അവരെ അവരുടെ കയ്യിലുള്ള ചെറി ചെറിയെ എക്കെ പൈസ ഉപയോഗിച്ച് അവിടെ ചെറിയ പാടത്തും വരമ്പത്തും കളി സ്ഥലങ്ങൾ നിർമ്മിച്ച് അവിടെ കളിക്കുന്നുണ്ട് അങ്ങനെ കളിക്കുന്നതിൽ കുറേ ആൾക്കാർ ഉന്നതയിൽ എത്തിയിട്ടുണ്ട് കുറേ ആൾക്കാരെത്തിയിട്ടുണ്ട് കളിച്ചിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഉള്ളത് പിന്നെ അവിടെ കളിക്കാൻ കുറെ ചാൻസുകൾ കിട്ടുന്നേൽ പറഞ്ഞാൽ കുട്ടികളുടെ കായിക പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കാൻ ഉൾനാട്ടിലുള്ളവർക്ക് കഴിയുന്നുണ്ട് മറിച്ച് ഇവിടെ സാമൂഹിക ഇടപെടലുകൾക്ക് അവർക്ക് നടത്തപ്പെടാനും ക്യാമ്പുകൾ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് പറ്റും അവിടെയുള്ള ക്ലബ് കൂട്ടങ്ങൾ ചേർന്ന് അല്ലെങ്കിൽ സ് സംഘങ്ങൾ സഹകരണ സംഘങ്ങൾ പോലെയുള്ള കൂട്ടങ്ങൾ ചേർന്ന് അവർക്ക് അവർ ഒത്തുകൂടി അവർക്ക് വേണ്ട കാര്യങ്ങൾ അതായത് ഇപ്പോൾ കലാപരമായാലും കായിക പരമായാലും എന്തു കാര്യങ്ങളായാലും അവരത് ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ അതായത് ഇപ്പോൾ ഉൾനാട്ടുകളിൽ കളിക്കുന്നവർ കൂട്ടം കൂടി ഇപ്പോൾ അടുത്തുള്ള ഒരു വീട്ടിൽ ഒര ഒരു അതിൽ ഒരുത്തൻ അതായത് ആ കൂട്ടത്തിലെ ഒരു ഒരുവാളെ ഒരാളുടെ വീട്ടിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലും അല്ലെങ്കിൽ പുതിയ വീടുകൾ കെട്ടുന്നുണ്ടേനും എല്ലാവരും കൂടി സഹായിക്കുന്നൊരു മനസ്തത അവിടെയുണ്ട് അതവർ ഒന്നിച്ചു കൂടി അവരാ വർക്ക് ചെയ്യും അതുപോലെയുള്ള അതുപോലെ അല്ല നമ്മളെ ടൗണേരിയകളിലുള്ളത് അവർ കളിച്ചു വൈകുന്നേരം കളിച്ചു കഴിഞ്ഞു സംഭവം അവർ യാതൊരു ഇടപെടലും അവിടെ നടത്തുന്നില്ല ഇതാ നമ്മുടെ നാട്ടിൽ പ്രദേശങ്ങളിലുള്ള എല്ലാവരും എല്ലാവരും എന്നു പറഞ്ഞാൽ ജി ജീവിത ഉപാധികൾക്കായി ആ നാട്ടിൽത്തന്നെ പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയാണ് പറയുന്നത് പറയാനുള്ളത് പിന്നെ ഉള്ളത് ജീവിതത്തിൻ്റെ നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ളതെന്നു പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ആൾക്കാർക്ക് ഒരാളെ ആശ്രയിച്ചായിരിക്കും ഉൾനാട്ടുകളിൽ ജീവിക്കുന്നത് അതായത് ഒരാൾക്കെന്തെങ്കിലും അസുഖം സംഭവിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്ല്യാണമായാലോ വേറെ എന്തും വേറെ എന്തു വിശേഷ ദിവസങ്ങളിലും ആ ആൾക്കാർ ഒന്നിച്ചിട്ട് അവരെ സഹായിക്കുകയും ഒന്നിച്ചു വർക്ക് അവർ തീർക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതാ കൂട്ടങ്ങൾ നന്നായിട്ട് അവിടെ സാമൂഹിക ഇടപെടൽ നടത്താൻ അവിടെ പറ്റുന്നുണ്ട് പിന്നെ ഈ ഉൾനാടുകളിൽ കളിക്കുന്നതു പറഞ്ഞാൽ ഇപ്പോൾ ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ മാത്രമല്ല പല പല പല കളികളും നമ്മൾ നാട്ടിൻ പുറത്തു കാണുന്ന കളികളൊന്നും നമ്മൾ ടൗണേരിയയിൽ കാണാൻ പറ്റാത്തതാണ് അതിൽ കുറേ ഉദാഹരണമായിട്ട് കോയ് ഗോട്ടിക്കളി പോലുള്ള കുറേ ഗെയിമുണ്ട് ഇപ്പോളും ഗോട്ടിക്കളിക്ക് നന്നായി പ്രാധാന്യം കിട്ടുന്നുണ്ട് ഉൾ ഉൾനാട്ടുകളിൽ അതൊന്നും ഇപ്പോഴത്തെ കൊച്ചു തലമുറകൾക്ക് അത് അറിയുന്നില്ല ആ കളി ഉണ്ടെന്നു പോലും അവർക്ക് അറിയത്തില്ല അവരിപ്പോൾ ഓൾറെഡി ഉള്ളത് ഓൾറെഡി മൊബൈൽ ഫോണും മറ്റും കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവരുടെ ചിന്ത വളർന്നു വരു വളർന്നു വരുന്ന തലമുറകൾ അധികം ചിന്തിക്കാനുണ്ട് പിന്നെ നമുക്ക് മൊബൈൽ മാത്രമല്ല ജീവിതത്തിൽ പലതും നേടാനുണ്ട് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെയാണ് പിന്നെ ഉള്ളത് കളി കളിയിലൂടെ സ്റ്റാമിന സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ പറ്റും അതായത് കുട്ടികളിൽ ഓൾറെഡി പഠനം മാത്രം പോരാ അതിലൂടെ കളികളും കളികളും വേണം കളികൾ ഉണ്ടെങ്കിൽ മാത്രമെ കുട്ടികൾ കുട്ടികൾക്ക് കായിക ക്ഷമത വർദ്ധിപ്പിക്കാനും അതുപോലെ ഇനി നല്ലൊരു പ്ലെയർ ഉണ്ടെന്നു കണ്ടെത്താനും സാധിക്കും അങ്ങനെ അങ്ങനെയുള്ള ഈ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സംഭവം തന്നെയാണ് ഉൾനാട്ടുകൾ ഉൾനാട്ടുകളിലുള്ള കളികൾ പിന്നെ ഉള്ളത് സാമൂഹിക ഇടപെടലുകൾ നമുക്ക് നടത്താൻ പറ്റുന്നതെന്നു പറഞ്ഞാൽ ഈ ഒരു നാട്ടിൽ വേണ്ട അത്യാവശ്യ കാര്യങ്ങളായ വെള്ളം വെള്ളം അതുപോലെ റോഡ് എന്നിവക്ക് വേണ്ടി ആ ആളുകൾ ഒന്നിച്ചുകൂടി അവരത് സംസാരിച്ചു ക്ലിയറാക്കി അവർ തന്നെ റോഡുകൾ ഉണ്ടാക്കുകയും വെള്ളത്തിനു വേണ്ടി അവർ കഷ്ടപ്പെടുന്നതും നമ്മൾ കാണാറുണ്ട് പിന്നെ ഉളളത് ജീവിതത്തിലെ നമുക്ക് സാമൂഹിക ഇടപെടലുകൾ വേണ്ടതെന്നു പറഞ്ഞാൽ നാട്ടുകാർക്ക് വേണ്ടി അവർ പലതും ചെയ്യും ഇപ്പോൾ ക്ലബ്ബിൻ്റെ വാർഷികമായാലും അവിടെ നാട്ടുകാർ നാട്ടുകാർ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവാതിര നാടകം കലാ കാ കലാമത്സരങ്ങളും നടത്തും അതൊരു സാമൂഹിക ഇടപെടലാണ് അത് അങ്ങകലെയുള്ള കാര്യങ്ങൾ നമുക്ക് ടൗണേരിയയിൽ കാണാൻ പറ്റുന്നിൽ പറ്റില്ല പിന്നെ ഉള്ളത് ജീവിതത്തിൽ നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റുന്നൊരു കാര്യം എന്നു പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ടത് കായിക ക്ഷമതയാണ് നമ്മൾ ഒരു ഘട്ടം വരെ അതായത് ജീവിതത്തിലെ നമുക്ക് ഒരു വയസ്സുവരെ നമ്മൾക്ക് നമ്മുടെ കായിക ക്ഷമത ഉണ്ടാകും പിന്നീട് നമ്മളൊരു മുപ്പത്തഞ്ച് വയസ്സു കഴിഞ്ഞാൽ നമ്മൾ കായിക ക്ഷമത നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇതിലെ വേണ്ടത് ഈ കളികളിലൂടെയാണ് അതൊക്കെ നമുക്ക് നേടി നേടിയെടുക്കാൻ പറ്റുക പിന്നെയുള്ളത് ജി നമുക്ക് അതുപോലെതന്നെ പ്രായമായ പ്രായമായവർ രാവിലെ എഴുന്നേറ്റു നടക്കുന്നതും നമ്മൾക്ക് ഗ്രാമ പ്രദേശങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് രാവിലെ അത് അതിരാവിലെ അഞ്ചു മണിക്കും നാലു മണിക്കും എഴുന്നേറ്റ് ഫുട്ബോളുകൾ പാടത്ത് പാടത്തിലൂടെ ഫുഡ്ബോളൊക്കെ കളി കളി കളിക്കാൻ പറ്റും കൂട്ടമായി എല്ലാം കൂട്ടം കൂട്ടമായി അവർ തി തീരുമാനിച്ചു നടത്തുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട് നാട്ടും പ്രദേശത്ത് അതിന് ഒന്നിന് ഉദാഹരണം ഞാൻ കൊ പറഞ്ഞിട്ടുണ്ട് ക്ലബ്ബ് ക്ലബ്ബുകളിൽ നടക്കുന്ന കായിക മത്സരങ്ങളും പിന്നെ കലാ മത്സരങ്ങളും പിന്നെ അതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളു ക്ഷേത്രങ്ങളുണ്ടാകുന്ന ഉത്സവങ്ങളിലും അവരൊന്നിച്ച് അവിടെ അ അവരെ വർക്ക് ചെയ്യുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ ഒരു സാമൂഹിക ഇടപെടലിലൂടെ കാണാവുന്നതാണ് പിന്നെ ഉള്ളത് നമുക്ക് ജീവിതത്തിൻ്റെ ആകെ ഉള്ള ഒരു ജീവിതത്തിൻ്റെ ആകെ ഉള്ള ഒരു ഇതെന്നു പറഞ്ഞാൽ കളിയാണ് കളിയിലൂടെ നമ്മൾക്ക് നമുക്ക് ജീവിതത്തിൻ്റെ ഇതും മാറ്റാൻ പറ്റും രാവിലെ എഴുന്നേറ്റ് രാവിലെ അഞ്ചു മണി അ ആറു മണിക്ക് എഴുന്നേറ്റ് നടക്കാനുള്ളതും പിന്നെ ഫുട്ബോളും മറ്റു ക്രിക്കറ്റ് മൊത്തം കിളിച്ചാലും നമ്മൾ ആ ദിവസം മ ഉന്മേ ഉന്മേഷവാനായിട്ടു കാണാൻ കാണാൻ പറ്റും പിന്നെ നമ്മൾക്ക് സാമൂഹികമായി ഇടപെടലുകൾ എന്നു പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സാമൂഹികപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇത്രെയൊക്കെയാണ് നമ്മൾക്ക് ഉൾനാടുകളിൽ കളിക്കുന്നതിലൂടെ ഇവർക്ക് പ്രയോജനം കിട്ടുന്നത്